ഇപ്പോൾ കായികം തൊഴിലാക്കിയ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ സ പറയാനാണെങ്കിൽ മെസ്സിയുണ്ട് റൊണാൾഡോ പിന്നെ അങ്ങനെ ഒരുപാട് പേരേ ഒക്കെ ഇപ്പോൾ ഇത് കായികം മാത്രം തൊഴില് ജീവിക്കുന്നവർ ആയിട്ട് നമുക്കറിയാം പിന്നെ ഇപ്പോൾ ക്രിക്കറ്റ് കളി ആണെങ്കി നമുക്ക് പറയാം മെസ്സി മറ്റേ എന്താ പറയുക ധോണിയുണ്ട് വിരാട് കോഹ്ലി ഉണ്ട് സച്ചിൻ ഉണ്ടായിരുന്നു ഇപ്പോൾ സച്ചിൻ വിരമിച്ചു അങ്ങനെ രോഹിത് ശർമ്മ അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ കായികത്തിൽ തന്നെ ആ ഉള്ളവരുണ്ട് അപ്പോൾ നമ്മള് പറയുമ്പോൾ കായികത്തില് നല്ല രീതിക്ക് ഉള്ള നേട്ടങ്ങള് കൈവരിക്കാൻ സാധിച്ചവർ തന്നെയാണ് കൂടുതലും ഇവരൊക്കെ പിന്നെ സ്കൂളുകളിലൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടികള് കൂടുതലും എന്താ പറയുക സ്പോർട്സിനൊക്കെ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് കുട്ടികളൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്പോർട്സ് ആയിക്കോട്ടെ ആർട്സ് ആയിക്കോട്ടെ കലാപരമായിട്ടും കായികപരമായിട്ടും ഒക്കെ ഉള്ള പരിപാടികളിൽ എല്ലാം തന്നെ നല്ല രീതിക്ക് തന്നെ പങ്കെടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നല്ല രീതിക്ക് ഇങ്ങനെ പങ്കെടുക്കുന്നതോടുകൂടി അവർക്ക് ഭാവിയില് വലിയൊരു പൊസിഷനിൽ എത്താനോക്കെ സാധിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് അവരെ നല്ല രീതിക്ക് തന്നെ എല്ലാ പരിപാടിക്കും പങ്കെടുക്കാനും വിജയം കൈവരിക്കാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കട്ടെ എന്ന് ഞാനും കരുതുന്നുണ്ട്